നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ എന്തൊക്കെ അവ ഇഷ്ടപ്പെടാൻ കാരണമെന്താണ് അങ്ങനെ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുസ്തകം ഞാൻ ഈ അടുത്ത് വായിച്ചിരുന്നു ആ പുസ്തകമെന്നു പറയുന്നത് ബെന്യാമിൻ എന്നു പറയുന്ന ഒരു വ്യക്തി എഴുതിയ ആട് ജീവിതം എന്നു പറയുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ സംസാരിക്കുന്നത് സൗദിയിൽ അകപ്പെട്ടു പോയ ഒരു മലയാളിയുടെ കഥയാണ് ആ പുസ്തകത്തിൽ പറയുന്നത് അതായത് സൗദി മരുഭൂമിയിൽ വെച്ച് അദ്ദേഹം നേരിട്ട ദുരനുഭവങ്ങളും അദ്ദേഹം നേരിട്ട കഷ്ടപ്പാടുകളും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സങ്കടങ്ങളൊക്കെയാണ് ആ ഒരു പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എനിക്കത് വളരെ അധികം ഇഷ്ടപ്പെടാൻ കാരണമെന്നു പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സ് ആ പുസ്തകത്തിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിൻ്റെ എൻഡിങ്ങ് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ്ങാണ് കഥ വളരെ സങ്കടം ഉള്ളതും അദ്ദേഹത്തിൻ്റെ കഷ്ടങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ നിരാശകളെയും ദുഖങ്ങളെയും പറ്റിയാണ് പറയുന്നതെങ്കിലും ആ കഥയുടെ അവസാനം അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹം ഒരു മരുഭൂമിയിലാണ് കുറേ കാലം താമസിച്ചിരുന്നത് അദ്ദേഹത്തിന് കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആ കഥയുടെ അവസാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അദ്ദേഹം മൂന്നു വർഷങ്ങൾക്കു ശേഷം ഏകദേശം നാലു വർഷങ്ങൾക്കു ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണുന്നു അദ്ദേഹം അവിടുന്ന് പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണി ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടായ അദ്ദേഹത്തിൻ്റെ മകൻ ജനിച്ചോ അല്ലെങ്കിൽ ഭാര്യ പ്രസവിച്ചോ എന്നതു പോലും അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് നാട്ടിലേക്ക് തിരിച്ച് ചെന്നപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിനൊരു മകനുണ്ടായ കാര്യം ആ മകനിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരവുമൊക്കെ അദ്ദേഹത്തിനു കിട്ടുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സങ്കടകരമായി തോന്നുമെങ്കിലും ഈ ഒരു പുസ്തകത്തിൻ്റെ അവസാനം വളരെ നമുക്ക് വായനക്കാർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ അവസാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അപ്പം അതുകൊണ്ട് എനിക്കീ ഒരു പുസ്തകം വളരെ ഇഷ്ടമാണ് ഈ അടുത്തു തന്നെ അതിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് ഒരു മൂവി ആയിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ കാരണം ഈ ഒരു പുസ്തകത്തിന് സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടു തന്നെ വളരെ നല്ല ഒരു പുസ്തകമാണ് ഞാൻ പെട്ടെന്നു തന്നെ വായിച്ചു തീർത്തൊരു പുസ്തകമാണ് കാരണം അത് അത്രക്കും നമ്മളെ ആകർഷിക്കും ആ ഒരു കഥ നമ്മൾ ആ കഥ നമ്മളാദ്യം വായിച്ചു തുടങ്ങിയാൽ തന്നെ നമുക്ക് അതിൻ്റെ അവസാനം എന്താകുമെന്ന് അറിയണം അറിയാനുള്ളൊരു ജിജ്ഞാസ വായനക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടാകും ആ ഒരു കഥ വായിക്കുമ്പോൾ അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ബെന്യാമിൻ എന്നു പറയുന്ന വ്യക്തിയുടെ ആട് ജീവിതം എന്ന പുസ്തകം